വയനാട് ജില്ലയിൽ ആശുപത്രികളെ കുറിച്ച് അല്ലെങ്കിൽ ആരോഗ്യ പരിപാലന സംവിധാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രത്തോളം മെച്ചപ്പെട്ടതല്ല എന്നുതന്നെ പറയാം കാരണം എന്തെന്നാൽ ഇപ്പോൾ മാനന്തവാടി പ്രദേശത്ത് മെഡിക്കൽ കോളജ് എന്നാണ് ഈ ഗവൺമെൻ്റ് കോളേജ് ഗവൺമെൻ്റ് ആശുപത്രിയെ പറയുന്നത് എന്നാൽ അവിടെ അത്രത്തോളം സൗകര്യമോ വൃത്തിയോ ഇല്ല എന്നുതന്നെ പറയാം വേണ്ടുവോളം ആംബുലൻസ് ഉണ്ടോ എന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നില്ല വേണ്ടുവോളം ആംബുലൻസ് ഇല്ല ഏറ്റവും പ്രധാനപ്പെട്ട മിഷ്യനുകളില്ല ഒരു എം അർ ഐ സ്കാൻ ചെയ്യണമെങ്കിൽ ആ പരിശോധന ഫെസിലിറ്റി ഇവിടെ ഇല്ല ഇ ഇ ജി സ്കാൻ എടുക്കണമെങ്കിൽ അതിൻ്റെ പരിശോധന ഫെസിലിറ്റി ഇവിടെ ഇല്ല ഇതൊക്കെ ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങളാണ് പല മിഷ്യനുകളും ഇവിടെ ലഭ്യമല്ല അതുപോലെ തന്നെ ഏറ്റവും എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ ഇവിടെ ഒരു ഡോക്ടർ കൃത്യമായ സമയത്ത് ലഭ്യമല്ല ഇതിനൊക്കെ നമ്മൾ കുറേ ഒരുപാട് അങ്ങോട്ട് പോകേണ്ടതുണ്ട് വയനാട് ജില്ലയിലെ മൊത്തത്തിൽ പറയുക പറയുന്നതല്ല എന്നാൽപ്പോലും ചില പ്രദേശത്തിൽ ആശുപത്രികൾ ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട് അല്ലാതെ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ആശുപത്രികളുണ്ട് മേപ്പാടിയിൽ ഒരു മിംസ് ആശുപത്രി ഉണ്ട് കല്പറ്റ ലിയോ ഉണ്ട് ഇവിടെ ഒക്കെ അത്യാവശ്യം എല്ലാ ഉപകരണങ്ങളും അതുപോലെ തന്നെ ചികിത്സ കേന്ദ്രങ്ങളുമുണ്ട് അത്യാവശ്യം നല്ല വൃത്തിയുമാണ് മാ കോവിഡ് വന്ന ആ ഒരു മഹാമാരി സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചത് കൊണ്ട് നമുക്ക് വലിയൊരു ഭാരം തന്നെ ഒഴിവാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്